അസുഖങ്ങള് ചികിത്സിക്കാന് ആശുപത്രിയില് പോകാനാണോ നിങ്ങള്ക്കിഷ്ടം അസുഖങ്ങള് ചികിത്സിക്കാനായാലും എന്തിനുവേണ്ടിയായാലും ആശുപത്രികളെ നമ്മളൊന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ചുറ്റുപാടാണ് നമ്മള് ആശുപത്രികളെ പക്ഷെ സമീപിച്ചേ പറ്റു ഒരുപാട് വലിയ രോഗങ്ങള് നമുക്ക് വന്നുപെട്ടാല് അത് തീര്ച്ചയായും അത് മാറ്റി എടുക്കേണ്ടതുണ്ട് ഒരുപാട് നാള് സന്തോഷത്തോടെയും സമാധാനത്തോടെയും സുഖത്തോടെയും ജീവിക്കണമെങ്കിൽ നമുക്ക് നല്ല ചികിത്സകള് കൂടിയേ തീരു വീട്ടുവൈദ്യത്തെ ഒരുപാട് ആശ്രയിക്കാന് നമുക്ക് സാധിക്കില്ല ചെറിയ ചെറിയ രോഗങ്ങള് നമുക്ക് വേണമെങ്കില് വീട്ടു വൈദ്യം ഉപയോഗിച്ച് മാറ്റി എടുക്കാം എന്നാല് പഠിച്ച പഠിച്ച വൈദ്യത്തില് വളരെ ജ്ഞാനമുള്ള ഡോക്ടര്മാരുടെ നിര്ദേശങ്ങളനുസരിച്ച് നമ്മള് മുന്നോട്ട് നീങ്ങിയാല് ഒരു പക്ഷെ നമ്മുടെ രോഗം എന്നെന്നേക്കുമായി മാറിയേക്കാം അല്ലെങ്കില് അതിനുവേണ്ടി പ്രതിവിധികള് അവര്ക്കാണ് ഏറ്റവും നന്നായി അറിയുക സാധാരണക്കാരെപ്പോലെ അല്ല പഠിച്ചിറങ്ങുന്ന ഡോക്ടര്മാര് അതുകൊണ്ട് തന്നെ നമ്മള് വൈദ്യസഹായം അവരില് നിന്നും ആവശ്യപ്പെടുന്നത് വളരെ നല്ലതായിരിക്കും അവര് ശരിയായ രീതിയില് നമ്മെ ചികിത്സിക്കുന്നു അപ്പോള് അസുഖങ്ങള് ചികിത്സിക്കാന് പോകാന് ഇഷ്ടമില്ലെങ്കില് പോലും ആശുപത്രികളില് പോയി ചികിത്സിക്കുന്നത് വളരെ നല്ല കാര്യമാണ് ഞാന് വീട്ടു വൈദ്യവും ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടില് എന്റെ അച്ഛമ്മ ഉള്ളതിനാലെന്റെ അമ്മൂമ്മ ഇതൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കുന്നു ഒരോ ഓരോ അസുഖങ്ങള്ക്ക് ഓരോരോ ചെടിമരുന്നുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വരുമ്പോൾ ചുമ കഫക്കെട്ട് അതുപോലെ ഇപ്പോൾ വയറിളക്കം അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ ഓരോ ചെടികളുടെ വേരും ഇലയുമൊക്കെ വച്ച് വെള്ളം തരും അപ്പോള് സവിശേഷമായിട്ട് ഉപയോഗിക്കുന്ന ചില പ്രതിവിധികള് എന്നു പറയുമ്പോള് മുക്കുറ്റിയുടെ ഇലയിട്ട വെള്ളം പെരുവിന്റെ വേരു വച്ചു തിളപ്പിച്ച വെള്ളം കുടിക്കുക പിന്നെ പനിക്കൂര്ക്ക ഇങ്ങനെയൊക്കെയുള്ള ചില ചില ചുറ്റിനും നമ്മടെ ചുറ്റിനും കാണാന് സാധിക്കുന്ന ചെടികളൊക്കെ ഉപയോഗിച്ച് എന്റെ രോഗം മാറിയിട്ടുള്ള ചരിത്രങ്ങളുമുണ്ട് എന്നാല് വേറെ വലിയ രോഗങ്ങളൊക്കെ വരുമ്പോള് എപ്പോഴും ഡോക്ടറെ സമീപിക്കാറാണ് പതിവ് ഇനി ഫസ്റ്റ് എയിഡ് എന്ന രീതിയില് നമുക്ക് ഇപ്പോള് ഒരു പൊട്ടലോ മുറിവോ ഒക്കെ സംഭവിച്ചാല് ഡോക്ടറിനെ കാണുന്നതിമൊക്കെ മുന്പ് തന്നെ ചെറിയ ചെറിയ പൊടികൈകള് നമ്മള് ഉപയോഗിക്കാറുണ്ട് ചായയിലയോ പഞ്ചസാര ഉപയോഗിക്കുക മുറിവില് വയ്ക്കുക അങ്ങനെയൊക്കെ രക്തം നില്ക്കാനായി ഒക്കെ നമ്മള് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ വീട്ടു ചികിത്സ എന്നല്ല ഒരു ഫസ്റ്റ് എയിഡ് എന്നതിന്റെ ഭാഗമാണ് അതിന് ശേഷം നമ്മള് ഉറപ്പായും ആശുപത്രികളില് പോയി അവരുടെ വൈദ്യന്മാരുടെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങള് അറിയണം നമുക്ക് ഇൻ്റെണലി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കില് അവരെ തന്നെ സമീപിച്ചേ പറ്റു അങ്ങനെയേ നമ്മള്ക്ക് നമ്മുടെ രോഗമായാലും എന്ത് അപകടം പറ്റിയാലും അതൊക്കെ പൂര്ണ്ണമായും എത്രയും വേഗം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ